പ്രദേശത്തെ മതപരമായ ആചാരങ്ങളെന്നു പറയുന്നെ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറുകിട കച്ചവടങ്ങളെന്നു പറയുന്നത് ഒന്നാമതായിട്ട് മെഴുകുതിരി മെഴുകുതിരിയുടെ ഒരു ഇത് നമ്മുടെ ജീവിതത്തില് വളരെ അത്ഭുതം വളരെ ഇതായിട്ടുള്ള കാര്യങ്ങളാണ് മെഴുകുതിരി അവര് ഒത്തിരി എഫേർട്ടെടുത്ത് മെഴുകുതിരി ഉണ്ടാക്കി കൊണ്ടുവരുന്നു നമ്മളത് രൂപത്തിൻ്റെ മുന്നിലൊക്കെ കത്തിക്കാനും പള്ളികളിൽ മാത്രമല്ല കുരിശടികളിൽ മാത്രമല്ല നമുക്ക് വീടുകളിൽ ആണെങ്കിലും നമ്മള് പ്രാർത്ഥനാ സമയങ്ങളില് നമുക്ക് പ്രാ ഉള്ള മെഴുകുതിരി കത്തിച്ചുവച്ചു പ്രാർത്ഥിക്കുക അത് ഒരു നമ്മളെ നമ്മുടെ ഒരു വിശ്വാസജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു ചെറുകിട സംരംഭമാണത് പിന്നെ കൊന്ത വെന്തിങ്ങാ മുതലായവ അത് ഇപ്പോള് സിസ്റ്റേഴ്സാണെങ്കിലും അല്ലേ ചെറുകിടവ്യവസായം പോലെ ആളുകള് കൊന്തയും വെന്തിങ്ങായും ഒക്കെ പിന്നെ ഉണ്ടാക്കി നമ്മള് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മള്ക്ക് മതപരമായിട്ടുള്ള നമ്മുടെ വിശ്വാസങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് പിന്നീട് നമ്മള്ക്ക് ഉള്ളതെന്നുപറഞ്ഞാല് വെളിച്ചെണ്ണ നമ്മുടെ നിലവിളക്ക് കത്തിക്കാന് നമ്മള് പള്ളികളിലേക്കാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ അത് കൊപ്രാ തേങ്ങാ പൊട്ടിച്ച് കൊപ്രാ ആട്ടി വെളിച്ചെണ്ണ അതും നമ്മുടെ മതപരമായ വിശ്വാസത്തെ ഒരുപാട് സ്വാധീനിക്കുന്ന ഘടകമാണ് വെളിച്ചെണ്ണ പിന്നെ പൂക്കള് ഇപ്പോള് നമ്മള് ബാംഗ്ലൂര് തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളില് നമ്മള് കൃഷി മറ്റുള്ളവര് കൃഷിയെയ്ത് ഓരോരുത്തര് എഫേർട്ടെടുത്ത് കൃഷിയെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നമ്മള്ക്ക് പിന്നെ ആ പൂക്കള് കിട്ടി നമ്മള് പിന്നേ പെരുന്നാളിനും മറ്റു സമയങ്ങളിലൊക്കെ പിന്നെ പുണ്യാളന്മാരുടെ രൂപത്തിൻ്റെ മുൻപിലൊക്കെ ഇടുകയോക്കെ ചെയ്യുമ്പോള് നമുക്കാത് ആ ഒരു ചെറുകിട വ്യവസാമെന്നു പറഞ്ഞാല് നമുക്ക് നിസ്സാരമായിട്ടു തോന്നിയാലും അത് വലിയൊരു നമ്മുടെ വിശ്വാസജീവിതത്തിനൊരു വലിയ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ വിശ്വാസജീവിതത്തിനു വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് പിന്നേ കാര്യമാണ് പിന്നീട് എന്താണു വേറെ പറയുമ്പഴെ ആ ഇങ്ങനുള്ള പിന്നെ ചിരട്ട നമ്മള് പള്ളിയിലാണെങ്കില് കുന്തിരിക്കം പുകയ്കാനായിട്ട് നമ്മുടെ പിന്നെ ധൂപക്കുറ്റി ധൂപക്കുറ്റി ഈ ഉപയോഗി ഈ പള്ളിക്കകത്ത് ഉപയോഗിക്കുമ്പോള് അതിനു നമുക്ക് ചിരട്ടക്കരി ആവശ്യമാണ് അപ്പോള് ആ ചിരട്ട കരിച്ചുള്ള അതിൻ്റെയാ കരി കാര്യങ്ങള് അതൊക്കെ ഒരു ചെറുകിടവ്യവസായം പോലെ ബന്ധപ്പെട്ട അതാണ് നമ്മുടെ ഒരു മതപരമായ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്